ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന പത്രം ദീപികയാണ് ഈ പത്രത്തിൽ ഞങ്ങളുടെ പ്രദേശത്തെ വാർത്തകൾ കൂടുതലായി വരാറുണ്ട് ജീ പഞ്ചായത്തിലെ പല പല കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വുരുന്നുണ്ട് ഇപ്പം പഞ്ചായത്തിലുള്ള പള്ളികളിലെ തിരുനാളുകൾ അമ്പലങ്ങളിലെ വിശേഷങ്ങൾ എല്ലാം കൃത്യമായി വരുന്ന വാർത്തകളായി വരാറുണ്ട് ഇവിടെ നടക്കുന്ന സമകാലിക പ്രശ്നങ്ങൾ അപകടങ്ങൾ അങ്ങനെയുള്ള നിരവധി വാർത്തകൾ ഇതിൽ വരുന്നു വരുന്നതായി കാണുന്നുണ്ട് ഈ അടുത്ത് തന്നെ ഇവിടെ ഒരു അപകടം ഉണ്ടായപ്പോൾ അതിൻ്റെ വാർത്തയും ഫോട്ടോയും കൃത്യമായിട്ട് തന്നെ പിറ്റേ ദിവസത്തെ അതിനു ശേഷമുള്ള ദിവസത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കൃത്യമായ വിവരങ്ങളാണ് പേരുകൾ സഹിതം വരുന്നു ഉണ്ടായിരുന്നു അതേപോലെ പറയുന്ന ആളുകൾ പിന്നെ സ രാഷ്ട്രീയ സാമൂഹിക പരിപാടികൾ തുടങ്ങി ധാരാളം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു ഏത് വാർത്തയാണ് നമുക്ക് എത്രത്തോളം പ്രത്യേകതകളുണ്ട് ശ്രദ്ധയിൽ പെട്ടില്ല അന്നേരം ഏതേലും വാർത്തകളെ കുറിച്ച് പ്രയോഗിക്കുന്നു വിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടേ ഇവിടെ എല്ലാ തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് നമ്മുടെ പ്രദേശ ത്തുള്ള പഞ്ചായത്തിലെ വഴികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു വഴിമൊ വഴിയുടെ അവസ്ഥ വളരെ മോശമാണ് എന്നും വഴി അതിന് പുനരുദ്ദാരണം നടന്നിട്ട് വർഷണങ്ങൾ ആയെന്നും തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അത് ഏറ്റ പ്രയോജനം പ്രയോജനം പ്രവണതമായ ഒരു വാർത്തയായിരുന്നു അതുകൂടാതെ ജലക്ഷാമത്തെ കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത് ജല ക്ഷാമം രൂക്ഷമാണ് പല പദ്ധതികൾക്കൂടെ വെള്ളം വരുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വെള്ളം എത്തുന്നില്ല എന്നും പറഞ്ഞ് ഒരു ഫീച്ചർ വന്നിരുന്നു അതിൻ്റെ ഫലമായി ഇതിലെ ജലവിതരണത്തിനായിട്ട് ജല വിതരണത്തിനായി ജലനിദി പദ്ധതി അനുവദിക്കേം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകേം ചെയ്യുന്നുണ്ട് വാർത്തകൾ വരുന്നു അതിൻ്റെ ഫോളോപ്പ് എന്നുള്ള രീതിയിൽ അതിൻറ്റേതായ ഗുണങ്ങളും ഈ നാടുകളിൽ ലഭിക്കാറുണ്ട് പിന്നെ ആളുകൾ പത്രം അതിലുള്ള പരസ്യങ്ങളും നാട്ടിലുള്ള പരസ്യങ്ങളും പത്രത്തിൽ വാർത്തകളായിട്ട് വരാറുണ്ട്